ആ വളം കൊടുക്കുന്നുണ്ട് മ് എന്നാ വളമാ വേണ്ടത്

മ് മ് പിന്നെ

ഒരു ഒരു വാഴയ്ക്ക് നമ്മൾ ഒരു വാഴയ്ക്ക് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും വെച്ച് നമ്മളിടണം

ആ പത്ത് വാഴയ്ക്ക് അപ്പം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക ഉം അ ആ പിന്നെ ആ പച്ചക്കറിക്ക് നമ്മൾ ഇടുന്നത് നമ്മൾ എന്നാൽ കോഴി കാഷ്ടമുണ്ട് പിന്നെ ഇത് എല്ലുപൊടി ഉണ്ട് ആ എല്ലുപൊടി ഉണ്ട് ചാണകപ്പൊടി ഉണ്ട് ആ തരാം പിന്നെ തെങ്ങിന് എന്താ ആ തെങ്ങിന് നമ്മൾ പൊട്ടാഷ് ആണ് ഉള്ളത് പൊട്ടാഷ് ആ പൊട്ടാഷ് നമ്മൾ മ് അ മണ്ടക്ക് അടിക്കാൻ നമുക്ക് ആ വിഷം ഉണ്ട് നമ്മുടെ മണ്ടക്ക് അടിക്കുന്ന വിഷമുണ്ട്

ആ പിന്നെ പച്ചമുളകിന് നമ്മൾ പൊട്ടാഷും അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ ഇടരുത് ഈ തെങ്ങിലും വാഴയ്ക്ക് മാത്രമേ പൊട്ടാഷും യൂറിയായും ഒക്കെ ഇടാവുള്ളൂ പച്ചക്കറിക്ക് നമ്മൾ വല്ലാത്ത നമ്മളെ ജൈവ വളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ ചാണകപ്പൊടിയും കോഴി കാഷ്ടവും എല്ലുപൊടി ഒക്കെ നമ്മൾ അല്ല പച്ചക്കറിക്ക് ഉപയോഗിക്കാവുള്ളൂ ആ തരാം നിങ്ങൾക്ക് ഉം പച്ചക്കറിക്ക് പറഞ്ഞു ആ പച്ചമുളക് മ് അ പുളിക്കൊന്നും നമ്മൾ വളങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല അ മ് അ കരിവേപ്പിനക്കെ നമക്കിട കറിവേപ്പിന് നമുക്ക് എന്താ ഏറ്റവും നല്ലത് നമുക്ക് ഇത് പുളിച്ച കഞ്ഞി വെള്ളം കറിവേപ്പിന് ഒഴിച്ച് കൊടുക്കുക പച്ചമുളകിനൊക്കെ പുളിച്ച കഞ്ഞി വെള്ളമൊഴിച്ച് കൊടുക്കുക പിന്നെ ഇച്ചിരി ജൈവ വളംകൂടി ഇട്ടാൽ ഇച്ചിരി ആട്ടുങ്കാട്ടംകൂടി ഇടാമെങ്കിൽ പിന്നെ കറിവേപ്പിന് ഏറ്റവും നല്ലതാ ചെടികൾക്കൊക്കെ നമ്മൾ ജൈവ വളം ഇടണം എല്ല് പൊടിയും നമ്മുടെ എല്ലുപൊടി ഇടണം പിന്നെ ചാണകപ്പൊടി ഇടണം അങ്ങനെ കുറച്ച് ഇട്ടാൽ മതി മ് ആ ആ ഇത്ര നിങ്ങളുടെ ഇത് എത്ര കിലോ വേണം എന്നുള്ള അതനുസരിച്ചാണ് നിങ്ങളെ പൈസ വരുന്നത്

ആ വാഴയുടെ എത്ര വാഴ ഉണ്ട് എത്ര തെങ്ങുണ്ട് അ അ അതനുസരിച്ച് വേണം മ് മ് അ നമുക്കൊരു പത്ത് രണ്ടായിരം രൂപയെങ്കിലും ആകും വളങ്ങൾക്കെല്ലാംകൂടെ

പ്ലാവിന് നമുക്ക് ജൈവം ഇടാം ജൈവവളവും ചാണകപ്പൊടിയുംകൂടി ഇട്ട് നമ്മുടെ പ്ലാവിന്റെ മൂഡ് ഒന്ന് തൂമ്പയ്ക്ക് കൊത്തി വാരിയിട്ട് അത് അങ്ങോട്ട് ഇട്ടേച്ച് മണ്ണിട്ട് മൂടുക ഒട്ട് മാവിനും അത് തന്നെ